എന്റെ ഫേവറേറ്റ് വിഷയം ലാംഗ്വേജ് ആയിരുന്നു മലയാളം ഇംഗ്ലീഷ് ഭയങ്കര താത്പര്യുള്ള ഒരു സബ്ജക്ട് ആയിരുന്നു പിന്നെ ഹിന്ദി താത്പര്യം ആണ് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് എങ്ങനെ എഴുതിയാലും മാര്ക്ക് കുറച്ച് കൂടുതല് ലഭിക്കുന്ന ഒരു സബ്ജക്ട് അതാണ് ബിക്കോസ് നമ്മളൊരു കൊസ്റ്റൻ കണ്ടിട്ടുണ്ടെങ്കില് ആ കൊസ്റ്റൻ തലതിരിച്ചു എഴുതിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിനു മാര്ക്ക് ഒക്കെ കിട്ടാന് ചാന്സുണ്ട് ആ കൊസ്റ്റൻ അതുപോലെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ആ കൊസ്റ്റൻ വെറുതെ എഴുതി വച്ചാലും ചിലപ്പം നമുക്ക് മാര്ക്ക് കിട്ടും കൊസ്റ്റനിൽ തന്നെ ആന്സേർസ് ഉണ്ടാവുന്ന ഒരു സുബ്ജക്ട് ആണത് ഹിന്ദി ആണെങ്കിൽ എക്സാമിന് കുറച്ച് മാര്ക്ക് കൂടുതല് കിട്ടുന്ന സബ്ജക്ട് ആണ് പിന്നെ പഠിക്കാന് എളുപ്പമാണോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടഫ് ഒക്കെ ആണെങ്കിലും ആ നമുക്ക് ഒരു അക്ഷരങ്ങള് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതു പഠിക്കാന് കുറച്ച് കൂട്ടി എഴുതാനും അങ്ങനത്തെ കുറച്ച് എളുപ്പ വിദ്യകള് ഒക്കെ ഉണ്ട് പിന്നെ എക്സാമിന് കുടുതൽ മാര്ക്ക് ലഭിക്കുന്ന സബ്ജക്ട് അതാണ് നമ്മള് എങ്ങെനെ എന്തൊക്കെ എഴുതിയാലും ഒരു മാര്ക്ക് എങ്കിലും അതിനു ലഭിച്ചിരിക്കും അങ്ങനെ ഒരു സബ്ജക്ട് ആണത് അതുകൊണ്ടാണ് കൂടുതല് ഇഷ്ടപ്പെടാന് കാരണം കാരണം നമ്മള് എക്സാമിന് പഠിക്കാണ്ട് പോയാലും നമുക്ക് മാര്ക്ക് കിട്ടുമല്ലോ പഠിക്കാന് താത്പര്യമില്ലെങ്കില്ലും പഠിക്കാണ്ടൊക്കെ പോയാലും നമുക്ക് മാര്ക്ക് കിട്ടുമല്ലോയെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോവുക ആ കൊസ്റ്റൻ നമ്മള് അതേപോലെ തലതിരിച്ച് എഴുതി വയ്ക്കുകയും ചെയ്യും മാര്ക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ചില കൊസ്റ്റൻസ് തന്നെ ആന്സേര്സ് ഉണ്ടാവാനും ചാന്സുണ്ട് അങ്ങനെതന്നെയാണ് ഹിന്ദീന്റെ ഒരു പ്രത്യേകമൊരു ഒരു പ്രത്യേകതര പ്രത്യേകത ആണത്